ആറ് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അഞ്ച് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനെട്ട് പത്ത് രണ്ടായിരം അഞ്ച് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പത്തൊമ്പത് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ്